ഹാലോ ആ ഇത് ക്യാബിൻ്റെ ഓഫീസല്ലേ ആ ഓക്കേ ഓക്കേ ഞാൻ ഇന്നലേ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കോഴിക്കോടിൽ നിന്ന് എറണാകുളം വരേ പോകാനായിട്ട് ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതേ അത് തന്നേ ആ അപ്പോൾ ഞാൻ എല്ലാ തവണയും നിങ്ങളുടെ അടുത്തു തന്നെയായിരുന്നു ക്യാബ് ബുക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തന്നേ കോൺടാക്ട് ചെയ്തത് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ തവണയും നല്ല വണ്ടി തന്നെയായിരുന്നു എനിക്ക് അയച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഈ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് ക്യാബ് വിളിച്ചതും അപ്പോൾ ഇന്നലെ നിങ്ങൾ അയച്ച വണ്ടി ഭയങ്കര മോശമായിരുന്നു കാരണം അതിൻ്റെ ഇൻ്റീരിയറൊക്കേ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അതിൽ യാത്ര ചെയ്യാൻ തന്നേ ഒരു ഇൻ്ററസ്റ്റില്ലാത്ത പോലത്തൊരു വണ്ടി ആയിരുന്നു ആ അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇൻ്റീരിയറൊക്കേ ഭയങ്കര വൃത്തികേടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെത്തെ ഒരു അവസ്ഥയായിരുന്നു ആ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ഒന്നുങ്കിൽ ഇനി എന്താ പറയുക ഇതുപോലേ ഉള്ള വാഹനങ്ങൾ നമുക്കൊന്നും ക്ലീൻ ചെയ്യാത്ത വാഹനങ്ങളൊന്നും നമുക്ക് അയക്കരുത് കാരണം നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാണ് നമുക്കും അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാണ് ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്യാബ് ബുക്ക് ചെയ്തത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ സീറ്റ് കീറിപ്പോയതാണ് ഭയങ്കര എന്താ പറയുക ഒരുമാതിരി സ്മെല്ലും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഭയങ്കര ഇൻ്റീരിയറിലൊക്കേ ഭയങ്കര വൃത്തികേടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളിനി വണ്ടി അയക്കാവുള്ളൂ കേട്ടോ ആ ഓക്കേ ഓക്കേ ഞാനിത് ജസ്റ്റൊരു കംപ്ലൈൻ്റ് രീതിയിൽ നിങ്ങളോട് പറഞ്ഞുവെന്നേ ഉള്ളൂ നിങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും ആയിക്കോട്ടെ ഓക്കേ എന്നാൽ ഞാനത് പറയാൻ വേണ്ടി വിളിച്ചുവെന്നേയുള്ളൂ ഓക്കേ താങ്ക് യൂ